അതെ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ കുറച്ചുനാൾ മുമ്പ് എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഞാനും എൻ്റെ ഫാമിലിയും കാണാൻ പോയിരുന്നു കാണാൻ അതി സുന്ദരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നല്ല മനോഹരമായ ചിത്രപ്പണികളോടു കൂടിയ അത് നമ്മളെ യഥാർത്ഥത്തിൽ അത് ശരിക്കുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്ര രൂപങ്ങളായിരുന്നു അവിടെയുണ്ടായിരുന്നത് താജ്മഹൽ അതുപോലെ ആന ആനയുടെ രൂപം സിംഹം അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെയും ഒക്കെയായിരുന്നു പൂന്തോട്ടം അങ്ങനെ നല്ല കാണാൻ നല്ല കണ്ണിന് കുളിർമ തോന്നിക്കുന്ന കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലും അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിച്ചിരുന്നത് ഒരുപാട് വിവിധതരത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളും വിവിധയിനം മീനുകളും പക്ഷികളും അതുപോലെ വിവിധ ഇനം മൃഗങ്ങളും പാമ്പ് അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരോ കാര്യങ്ങൾ യന്ത്ര ഊഞ്ഞാൽ അതേ പോലെ പ്ലെയിനിൽ കയറിയിട്ടുള്ള കളിക്കാൻ പറ്റുന്ന അതേ പോലെ ട്രെയിൻ പിന്നെ അതുപോലെ പലതരം കച്ചവടങ്ങൾ പഴയകാലത്തെ മിഠായികളും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന അവിടെ ചെന്നിരുന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരുവാൻ തന്നെ തോന്നിയില്ല അത്രക്കും മനോഹരമായ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്